എൻ്റെ ആധാർ നമ്പറ് അപ്പ്ഡേറ്റ് ചെയ്യാൻ വേണ്ടീട്ട് ഞാൻ കുറച്ച് കാര്യങ്ങളിന്നലെ കൊടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഫോൺ നമ്പറ് പുതിയതായിട്ട് അപ്പ്ഡേറ്റ് ചെയ്യണം പഴയ ഫോൺ നമ്പറാണതിൽ കിടന്നത് അപ്പം എനിക്ക് എൻ്റെ പഴയ ഫോൺ നമ്പറെൻ്റെ കയ്യീന്ന് നഷ്ടപ്പെട്ടു അതുകൊണ്ടെനിക്ക് ഓ ടി പിയൊന്നും ആധാറിലെന്തെങ്കിലും ചെയ്യുമ്പോൾ ഓ ടി പിയൊന്നും വരുന്നില്ല അതുകൊണ്ട് ഞാൻ പുതിയ ഫോൺ നമ്പരതിൽ അപ്പ്ഡേറ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ അത് മാത്രമല്ല എൻ്റെ പേരിനിടയിൽ സ്പേസോടു കൂടിയാണെൻ്റെ ആധാർ നമ്പറിൽ കിടക്കുന്നത് പക്ഷേ എൻ്റെ പത്താം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റിൽ സ്പേസില്ല അപ്പതെനിക്കിനി ഞാൻ പാസ്സ്പോർട്ടിന് വേണ്ടി കൊടുത്തിട്ടുണ്ടപ്പം വെരിഫിക്കേഷൻ സമയത്തതെന്തെങ്കിലും പ്രോബ്ലം ആകുവോന്നെനിക്കൊരു ഭയമുണ്ട് അതുകൊണ്ട് ആ എനിക്കാ സ്പേസ് മാറ്റുന്ന കാര്യോം കൂടെ ചേർത്താണ് ഞാൻ അപ്പ്ഡേഷന് കൊടുത്തിരുന്നത് അതുവല്ല എൻ്റെ അമ്മേടെ പേരിൻറ്റൊപ്പമുള്ള ഇൻഷ്യലും ആധാർ കാർഡിലില്ല അങ്ങനെ ഒന്ന് രണ്ട് മിസ്റ്റേക്കുകളെൻ്റെ ആധാർ കാർഡിലുണ്ട് അതുകൊണ്ട് എനിക്ക് ആ മൂന്ന് മിസ്റ്റേക്കും കൂടെ ചേർത്താണ് അപ്പ്ഡേറ്റ് ചെയ്യാൻ ആധാർ അപ്പ്ഡേറ്റ് ചെയ്യാൻ ഞാനിന്നലെ കൊടുത്തത് കൊടുത്തിട്ടിപ്പം മൂന്ന് ദിവസമായി ഇന്നലെ ഞാൻ ഓൺലൈനിൽ നോക്കിയപ്പോഴും ഒരു മാറ്റോം ഉണ്ടായിട്ടില്ല ഞാനിന്ന് രാവിലെ നോക്കി രാവിലെ നോക്കിയപ്പോഴും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല ഇതിപ്പിത്രയും ദിവസായോണ്ട് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കാരണം എനിക്ക് ഈ പാസ്സ്പോർട്ടിൻ്റെ വെരിഫിക്കേഷനക്കെ എന്നെ ഇനി വിളിക്കും അതിന് മുമ്പ് എനിക്കാധാറൊന്ന് എല്ലാം ശരിയാക്കിയെടുത്താലത് എനിക്ക് ഓഫീസി കൊണ്ട് പോകാൻ പറ്റാത്തൊള്ളൂ അതുകൊണ്ട് നിങ്ങളെത്രയും പെട്ടന്നെനിക്കത് ചെയ്ത് തരണം ഒരു കാര്യം ഞാൻ ചെയ്യാം ഞാൻ ഇന്ന് ഇന്ന് വൈകിട്ടും കൂടെ ഒരിക്കൽ കൂടെ നോക്കാം എന്നിട്ട് നാളെയും ഞാൻ ഒരിക്കൽ കൂടെ ചെക്ക് ചെയ്യാം നാളെ ഉച്ചക്കും നിങ്ങളൊന്ന് റെഡിയാക്കിയില്ലെങ്കിൽ ഞാൻ എന്തായാലും ഞാൻ ഓഫീസീ വരാം എന്നാണ് വിചാരിക്കുന്നത് എത്രയും പെട്ടെന്നെനിക്കതൊന്ന് ശരിയാക്കി തരണം ഇനി ഇപ്പം എന്താകുവോ എന്തോ എനിക്ക് എത്രേം പെട്ടന്ന് വേണം എൻ്റെ കാര്യങ്ങളക്കെ ആധാറിൻ്റെ കാർഡ് കിട്ടിയാലെ ബാക്കി കാര്യങ്ങളും പ്രോസീജിയറും എല്ലാം എനിക്ക് ചെയ്ത് തീർക്കാൻ പറ്റുവുള്ളു ഇത് ആധാറപ്പ്ഡേറ്റ് ചെയ്യുന്നത് അധികം അങ്ങനെ ഒരുപാട് പ്രോസസൊള്ള കാര്യവാണോ എനിക്കങ്ങനെ തോന്നുന്നില്ല കാരണം വളരെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഒരു ഫോൺ നമ്പർ അപ്പ്ഡേറ്റ് ചെയ്യണം എൻ്റെ പേരിൻറ്റിടയിലെ ആ സ്പേസ് മാറ്റി തരണം പിന്നെ അമ്മയുടെ പേരിനൊപ്പമുള്ള ഇനീഷ്യലും കൂടി ചേർത്ത് തരണം ഈ മൂന്ന് കാര്യങ്ങൾ മാത്രമേ ഉള്ളു ഇതിപ്പം മൂന്ന് ദിവസം വരെ ആയില്ലേ ഇത്രയും ദിവസം ലേറ്റാവേണ്ട കാര്യം തന്നെ അതിലൊന്നുമില്ല അതോണ്ടെത്രയും പെട്ടന്ന് ചെയ്ത് തരണം എനിക്കത്രയും ഉപകാരം എനിക്ക് എൻ്റെ പാസ്സ്പോട്ടങ്ങനെ എനിക്ക് ഉടനെ തന്നെ വെരിഫിക്കേഷന് വിളിക്കുവോന്ന് പോലീസ് സ്റ്റേഷനീന്നക്കെ ഞാൻ അറിഞ്ഞായിരുന്നു അപ്പം അതോണ്ടെൻറ്റ ആധാറിലെന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ പാസ്സ്പോർട്ടക്കെ വെരിഫിക്കേഷൻ സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവും അതൊക്കെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാല്ലോ അതുകൊണ്ട് അതെനിക്ക് എത്രയും പെട്ടന്ന് ചെയ്ത് തരണം ഇതിപ്പം എൻ്റെ പാ എൻ്റെ ആധാറ് മാത്രമല്ല എൻ്റെ മകൻ്റെ ആധാറ് ഞാൻ കൊടുത്തിട്ടുണ്ട് അവന് ഞാൻ രണ്ട് വയസ്സിൽ എടുത്ത ആധാറാണപ്പം അതിപ്പം പോരാ അവനിപ്പം ഏഴ് എട്ട് വയസായപ്പം ആ ആധാറ് മാറ്റാണം എന്നുള്ള ഒരിതും പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ പുതിയ ഫോട്ടോ എടുക്കാനും വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ പ്രോഗ്രസ്സെനിക്കറിയണം ഇത് രണ്ട് കാര്യങ്ങളുണ്ട് ഇപ്പത്യാവശ്യം ഇപ്പെൻ്റ ആധാറിൻ്റെ കാര്യമാണ് അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു ഇതിടുന്നത് തന്നെ മോൻറ്റത് കുറച്ചൂടെ ലേറ്റായാലും പ്രശ്നോന്നുമില്ല എന്റെത് എത്രേം പെട്ടന്ന് നിങ്ങൾ ചെയ്തു തരു എനിക്കത്രയും ഉപകാരം എന്തായാലും ഞാൻ ഇന്ന് രാ ഇന്ന് ഉച്ചക്കും കൂടെ നോക്കാം ഞാൻ ആദ്യം വിളിച്ചപ്പോൾ അവർ ഉച്ചക്ക് ശരിയാക്കും എന്നാണ് പറഞ്ഞത് അപ്പം ഒരു കാര്യം ചെയ്യാം ഞാൻ ഉച്ചക്കും കൂടെ നോക്കാം എന്നിട്ട് ശരിയായില്ലെങ്കിൽ രാത്രീം കൂടെ നോക്കാം ഇല്ലെങ്കിൽ ഞാൻ നാളെ രാവിലെ നിങ്ങളെ ഓഫീസിൽ വരും ശരി